ഞാൻ വളർത്തു മൃഗങ്ങളെ വളത്താറുണ്ട് എനിക്കേറ്റവും ഇഷ്ടം പട്ടി പൂച്ച ആട് ഈ മൂന്ന് വളർത്തു മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പട്ടിയാണെങ്കിൽ അതിനെ ഞാൻ സംരക്ഷിക്കാനും നോക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതിന് ആഹാരം കൊടുക്കുവാനും അതിന്റെ അതിനെ ശുസ്രൂഷിക്കാനും വലിയ താല്പര്യമാണ് പൂച്ചകളെ അതുപോലെ തന്നെ പൂച്ചകളാണെങ്കിൽ നമ്മുടെ കൂടെ അത് നിശബ്ദ ജീവികളാണ് നമ്മളെ കൂടെ എങ്ങോട്ട് പോയാലും അത് നമ്മുടെ കൂടെ വരികയും പോവുകയും ചെയ്യുന്നു അത് അതുകൊണ്ട് അതിന് വലിയ ഇഷ്ടമാണ് അത് ആഹാരം കൊടുക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും അതും വലിയ ഇഷ്ടം തന്നെയാണ് പിന്നെ ആട് ആടാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരാദായ മാർഗ്ഗവാണ് അത് അതിന്റെ പാലും അതുപോലുള്ള ആഹാരകാര്യങ്ങളിൽ നിന്നും നമുക്ക് ആദായം ലഭിക്കുന്നു അത് നല്ല ഒരു വളർത്തു മൃഗമാണ് നമുക്ക് അതിനെ ആ പാലും നമ്മൾ രാവിലത്തെ ആവശ്യത്തിനുള്ള പാൽ അതിൽ നിന്ന് ലഭിക്കുന്നു പോഷകം നിറഞ്ഞ പാലാണ് ആട്ടിന്റെ പാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നെ ഇതിനെയെല്ലാം വളർത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമെന്തെന്ന് വച്ചാൽ നമുക്ക് സമയം വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ സന്തോഷം ഉള്ള ഒരു കാര്യമാണത് പൂച്ചകളോടായാലും അത് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കുമ്പം നല്ല സന്തോഷം തോന്നും പട്ടികളെ പട്ടിയാണെങ്കിൽ അതിനെ കുളിപ്പിക്കുകയും അതിൻ്റേതായ കാര്യങ്ങൾ നോക്കുകയും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് സമയം പോവും സമയം ഒരുപാട് വെയ്സ്റ്റാക്കിക്കളയാതെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അങ്ങനെ ഏത് ഏതു രീതിയിൽ നോക്കിയാലും വളർത്തു മൃഗങ്ങൾ ഒരു വീട്ടിൽ പട്ടി പൂച്ച മാക്സിമം പട്ടിയും പൂച്ചയെങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സമയം നമ്മൾ അതിനുംകൂടി ഇത്തിരി സമയം നമുക്ക് ചിലവഴിക്കുവാൻ കഴിയും ആട് സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ വളർത്താൻ സ്ഥലസൗകര്യമുള്ളിടത്ത് മാത്രമേ വളർത്താൻ പറ്റിയ ജീവിയാണ് അതിന് ആ ആഹാരം കൊടുക്കാനും അതിന് ആ ആഹാരം ഉള്ള സ്ഥലത്തു നിന്ന് പോയി തേടിക്കൊണ്ടുവരുവാനൊക്കെയുള്ള സൗകര്യം ഉള്ളിടത്തേ ആട് വളർത്താൻ പറ്റുകയുള്ളു എങ്കിലും അതും നിഷുപ്ത ജീവിയാണ് അതിനും നല്ല നമ്മൾ നല്ലപോലെ അതിനെ ശുസ്രൂഷിക്കുകയാണെങ്കിൽ അതിന് നല്ല ആദായം കിട്ടുവാനും കഴിയും